മലയാള ഭാഷ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ബാക്കിയുള്ള ലാംഗ്വേജസ് സോറി ബാക്കിയുള്ള ഭാഷകൾ വച്ച് കമ്പയറ് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് പഠിക്കാൻ മലയാള ഭാഷയാണ് ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ അറിയാം എനിക്ക് പക്ഷേ മലയാളം എഴുതണേ കാട്ടിലും എളുപ്പം എനിക്ക് ഹിന്ദി എഴുതാനാണ് ഹിന്ദിയും ഇംഗ്ലീഷും എഴുതാനാണ് കാരണം മലയാളം മലയാളം ഇപ്പം ദേ എക്സാം ഏതെങ്കിലും എക്സാമായിക്കോട്ടെ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് മലയാളം മലയാളത്തിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ ബുദ്ധിമുട്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ എന്താണ് പറയുക എനിക്ക് ബോർഡ് എക്സമായിരുന്നു അപ്പം ബോർഡ് എക്സാമിന് എന്താണ് പറയുക ബോർഡ് എക്സാമിന് മലയാളം ഞാൻ മലയാളം ഞാൻ എടുത്തത് സബ്ജെക്റ്റ് ഓപ്റ്റ് ചെയ്ത സബ്ജെക്റ്റ് മലയാളമാണ് അപ്പം മലയാളത്തിൽ നമുക്ക് മാർക്ക് കിട്ടാണെ ഫുള്ള് എ എ പ്ലസ് കിട്ടണമെങ്കിൽ നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് മാർക്കിനും മുകളിൽ കിട്ടിയാലെ തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് നൂറ് ആ മാർക്ക് കിട്ടിയാൽ മാത്രമേ എ വൺ കിട്ടുകയുള്ളു അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ ഇനി ഇനി കുറച്ച് കൂടി കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ് നൂറ് മാർക്ക് കിട്ടിയാൽ മാത്രമേ എ വൺ കിട്ടുകയുള്ളു അങ്ങനെ ആ അങ്ങനെ ആയി അങ്ങനെ ആയി മാറും കാരണം അത്രയും ബുദ്ധിമുട്ടാണ് മലയാളത്തിൽ മലയാളം അങ്ങനെ എളുപ്പത്തിൽ മാർക്ക് കിട്ടില്ല അതിപ്പം കോളേജ് കോളേജുകളിൽ ആയാലും മലയാളത്തിൽ മലയാളം എഴുതണമെങ്കിൽ നമുക്ക് അത്യാവശ്യം സാഹിത്യത്തിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് സാഹിത്യം ഇല്ലാതെ മലയാളം എഴുതിയിട്ട് കാര്യമില്ല വെറുതെ നമുക്ക് ഒരു വായിൽ തോന്നിയത് വിളിച്ചെഴുതിയിട്ട് കാര്യമില്ല നമ്മൾ മലയാളത്തിൽ അത്യാവശ്യം ബുദ്ധിയും സാഹിത്യം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ മലയാളം എഴുതിയിട്ട് മാർക്ക് കിട്ടുകയുള്ളു നമുക്ക് ഒക്കെ പിന്നെ ബാക്കിയുള്ള ലാംഗ്വേജസ് ബാക്കിയുള്ള ഭാഷകളൊക്കെ വച്ച് നോക്കുമ്പോൾ മലയാളം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം മലയാളത്തിൻ്റെ ഗ്രാമർ ഗ്രാമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അത് എഴുതുന്ന രീതി ആയിക്കോട്ടെ പല പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇന്ത്യയിൽ ഏറ്റവും ടഫസ്റ്റ് ലൈക്ക് പഠിക്കാൻ പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് മലയാളമാണ് എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെ എന്താണ് പറയുക ഈ മലയാളം ലാംഗ്വേജ് ഉണ്ടായത് ഹിന്ദിയും സംസ്ക്രിറ്റ് ലാംഗ്വേജിൽ നിന്നും ആണ് മലയാളം നമ്മൾ എഴുതാൻ തുടങ്ങിയത് ഏറ്റവും കൂടുതൽ ഒരേ പോലെ തോന്നുക നമുക്ക് മലയാളം സാൻസ്ക്രിറ്റ് കുറേ ഒരു പോലെ തോന്നുക പക്ഷേ പല പല വ്യത്യാസങ്ങളുണ്ട് മലയാളം ലാംഗ്വേജ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ